ഇന്നലെ ഞാൻ ഒരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടാട്ടിരുന്നു അത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കാരണം അതില് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു പിന്നെ അതില് ഉപയോഗിച്ചിട്ടുള്ള എല്ലാം വർക്കുകളും കാരണം സ്വീക്കൻസ് വർക്കുകൾ ആയാലും അതിനോട് ഒപ്പം വരുന്ന ആ ത്രെഡ് വർക്കായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എനിക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടു നമ്മൾ കൊടുത്ത എമൗണ്ടിന് ഫുൾ അത് വെർത്ത് ആയിരുന്നു ആ ഒരു ഡ്രസ്സ് എന്ന് പറയണത് എനിക്ക് അത്രയും ഇഷ്ടമായി കാരണം അതിൻ്റെ കളറും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും എല്ലാം ആയിരുന്നു അപ്പം അത് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം എന്നുള്ള ഒരു രീതിയില് വരെ എനിക്ക് അത് ഫീൽ ചെയ്തു ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങിച്ചത് ഒരു ആയിരം രൂപയ്ക്കായിരുന്നു പക്ഷെ അത് ഒരു രണ്ടായിരം രൂപക്കുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ചുരിദാറില് ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയകരമായിട്ട് ഇഷ്ടമായി നല്ലൊരു പ്രോഡക്റ്റായിരുന്നു അത് നമുക്ക് എവിടേക്ക് വേണേൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പാർട്ടി ആണെങ്കിൽ കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞ രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെ ഒരു മതിപ്പ് ആ ഒരു ചുരിദാറിന് എനിക്ക് ഫീൽ ചെയ്തു അത്രയും നന്നായിരുന്നു ഞാൻ ഇവിടെ ചെറിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അത് വാങ്ങിച്ചത് പക്ഷെ ഇപ്പോൾ അതിന് അതിനേക്കാൾ വലിയ പ്രോഗ്രാംസ് കൂടെ അത് ഇട്ടിട്ട് പോകാം അത്രേം നല്ലൊരു പ്രോഡക്റ്റായിരുന്നു ആ ഒരു ചുരിദാർ എന്ന് പറയണത് കാരണം എനിക്ക് അത് അത്രയും നന്നായിട്ട് ഭയങ്കര എലഗൻറ്റായിട്ടായിരുന്നു അത് ഫീൽ ചെയ്യുന്നത് നമുക്ക് കാണിച്ച അതേ എക്സാക്ട് ആയിട്ടുള്ള ആ ഒരു മോഡലും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഒന്നും വ്യത്യാസമില്ല പിന്നെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി